ഹലോ ആ പ്രിയേ ഞാൻ വി നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയില്ല ഞാൻ ഇവിടെ നമുക്ക് ഭയങ്കര ആണോ ആ ആ നമുക്ക് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീടിൻ്റെ അടുത്തോരു ബിവറേജ് വന്നില്ലേ കുടിയന്മാരുടെ ഭയങ്കര ശല്യം ഞങ്ങളുടെ വീടിൻ്റെ ആ വഴിയിൽ ഒക്കെയാണ് കുടിയന്മാർ വന്ന് കിടക്കുന്നതും ബോധവും ഇല്ല ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ വഴിയിലൊക്കെ കിടക്കുവാണ് കുടിയന്മാരുടെ ഭയങ്കര ശല്യം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവിടുത്തെ ചേട്ടൻറെ അടുത്ത് പറഞ്ഞിട്ട്

ഇതിപ്പോൾ ഈ തൊട്ടടുത്തും കൂടെ ബിവറേജ് ആ ഇത്ര ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഇത് റെസിഡൻസ് ഏരിയയും കൂടെ ആയതുകൊണ്ടേ എല്ലാവരും കൂടെ ചേർന്ന് ഒരു തീരുമാനം എടുത്ത് അതിന് എന്തെങ്കിലും ഒരു ഇത് കണ്ടില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്

വഴിയിലൊക്കെ അങ്ങ് കിടക്കുവാണ് കുടിച്ച് ബോധം ഇല്ലാതെ

ഓ ഓ ശരി ഓക്കെ